ഹലോ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ അപ്പോൾ ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ നമുക്കിപ്പം ഒരു ടൂർ പാക്കേജ് ഉണ്ട് ഫാമിലിയായിട്ട് പോകാനാണേ അപ്പോൾ നാലുപേര് ആയിട്ടുള്ള ഒരു പാക്കേജ് ആകുമ്പോൾ എത്ര റേറ്റ് വരും അപ്പോൾ ഒരു ദിവസം ഒക്കെ ആകുമ്പോൾ മൂവായിരം ഉറുപ്പിക അല്ലെ അപ്പോൾ ഇതിപ്പോൾ മൂന്ന് നാല് എന്നുള്ളത് ഒരു ആറു പേരുടെ പാക്കേജ് ആവുന്ന വണ്ടി എടുക്കുവാണെല് അപ്പോൾ ഒരു കൂടി വലിയ ആറു സീറ്റ് ഉള്ള വണ്ടി എടുക്കുവാണെങ്കിൽ സെയിം റേറ്റ് തന്നെ ആയിരിക്കുവോ വ്യത്യസം ഉണ്ടാവില്ലേ

ഒരു അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം വരില്ലേ അങ്ങനെയാകുമ്പോൾ നമ്മക്ക് ആറുപേരുടെ എടുക്കുന്നത് അല്ലേ നല്ലത് അപ്പോൾ രണ്ടുപേരും കൂടെ എക്സ്ട്രാ കേറൂലോ നാലുപേരുടെ വണ്ടിയില് നാലു പേരല്ലേ ഇരിക്കാന് പറ്റൂ ആറ്പേരാകുമ്പോൾ മറ്റേ വലിയ വണ്ടി കുറച്ചും കൂടെ സൗകര്യം ആയിരിക്കും വിശാലായിട്ടു ഇരിക്കുകയും ചെയ്യാം ആ രണ്ടുപേര് എക്സ്ട്രാ ഉണ്ടേ അപ്പൊ അവരേം കൂടി ചേര്ത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് ആറുപേരുടെ വണ്ടി ഒണ്ടോന്നു ചോദിച്ചത് അപ്പോൾ റേറ്റില് ഒരു ചെറിയ ആ അഞ്ഞൂറ് രൂപയുടെ വ്യത്യസം വരില്ലേ ശരി ഞാന് അന്വേഷിക്കാന് വേണ്ടീ വിളിച്ചതാണേ ആ ഞാന് നോക്കിയിട്ട് വിളിക്കാം